വസ്ത്രങ്ങൾ കഴുകാൻ നമ്മൾ വാഷിംഗ് മെഷീനും അതുപോലെതന്നെ അലക്ക് കല്ലുമാണ് ഉപയോഗിക്കുന്നത് വാഷിംഗ് മെഷീനിൽ അലക്കുന്ന സമയത്താണെങ്കിൽ ആദ്യം അതിലേക്ക് സോപ്പുപൊടി ഇട്ട് അതിനുശേഷം നമ്മൾ വെള്ളമൊഴിച്ച് പാകത്തിനൊരു ആ സോപ്പ് അലക്കുന്ന തുണിയുടെ മേലെ വെള്ളം വരണം അത്രയും രീതിയിൽ വെള്ളം ആക്കിയിട്ടാണ് നമ്മൾ അലക്കുന്നത് അതുപോലെതന്നെ അത് അലക്കി ജസ്റ്റ് അത് അത് അലക്കി കഴിഞ്ഞപ്പോൾത്തന്നെ പിന്നേയും നമ്മൾ ആ വെള്ളം കളഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ട്രിപ്പ് കൂടി വെള്ളമൊഴിക്കും അങ്ങനെ ഒരു മൂന്ന് ട്രിപ്പായി കഴിയുമ്പോഴത്തേക്കും ആണ് തുണി വൃത്തി ആവുക അപ്പോൾ നമ്മൾ അത്രേയും വെള്ളം നമ്മൾ ആ വാഷിംഗ് മെഷീനിൽ അലക്കുമ്പം പോവുന്നുണ്ട് എന്നാൽ എന്നാൽ ആ കല്ലിലലക്കുമ്പോൾ ആണെങ്കിൽ അത്രയും വെള്ളം നമ്മൾ പാഴാക്കുന്നില്ല കാരണം മൂന്നാമത്തെ അലക്കിൽ ലൈക്ക് രണ്ടാമത്തെ വെള്ളം എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തേതിന്റെ ഒന്നുംകൂടി വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ അധികം വെള്ളം നമ്മൾ കൈകൊണ്ട് അലക്കുമ്പോൾ വരത്തില്ല കൈകൊണ്ട് അലക്കുമ്പോൾ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത നമ്മുടെ കല്ല് വച്ച് കുറേ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി മുക്കി തന്നെയാണ് അത് വൃത്തിയാക്കിയെടുക്കുന്നത് അപ്പോൾത്തന്നെ നമുക്ക് കുറേ വെള്ളം പോകും എന്നാൽപ്പോലും നമ്മൾക്ക് എന്താണ് വെള്ളം ലാഭിക്കാം അതിലൂടെ നമ്മൾക്ക് വെള്ളം ലാഭിക്കാൻ സാധിക്കും പിന്നെ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലങ്ങളിലാണെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഉണക്കിയിട്ടാണ് അവിടെ വിരിച്ചിടുന്നത് അവിടെ എല്ലാം വിരിച്ചിട്ടത് ഉണങ്ങിയിരുന്നത് പക്ഷെ അതു വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അലക്കിയിട്ട് വാഷിംഗ് മെഷീനിൽ തന്നെ അലക്കണം മഴക്കാലങ്ങളിലാവുമ്പോൾ കൂടുതലും വെള്ളച്ചിലവു വരും കാരണം നമ്മൾക്ക് കൈകൊണ്ട് അലക്കാനൊന്നും പറ്റത്തില്ല മഴയൊക്കെ ആയതുകൊണ്ട് അപ്പം നമുക്കല്ലാണ്ട് അലക്കേണ്ടി വരും അപ്പം നന്നായിട്ട് തന്നെ വെള്ളം ചിലവ് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് മഴക്കാലങ്ങളിൽ നമുക്ക് തുണി അലക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെള്ളം നമുക്ക് കൂടുതലും സാധിക്കും കാരണം വ്യത്യസ്ഥ കാലാവസ്ഥ വരുമ്പം മഴയൊക്കെ നമുക്ക് മഴവെള്ളം ശേഖരിക്കാം മഴവെള്ളം ശേഖരിച്ചിട്ട് നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇതിനുവേണ്ടി എല്ലാം ഉപയോഗിക്കാൻ പറ്റും പക്ഷെ വേനൽ സമയങ്ങളിൽ നമ്മൾ ചുരുക്കി അതായത് എന്താ പറയുക ചുരുക്കം മാത്രം കുറച്ചു മാത്രം വെള്ളം എടുത്ത് കുറേ ലാഭിക്കാൻ നോക്കുക കാരണം വറ്റൽ ആ അങ്ങനെ എന്താ വരൾച്ച എല്ലാം വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ആവശ്യമുള്ളതുകൊണ്ട് തുണി അലക്കുന്ന കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ അതിൽത്തന്നെ കൂടുതലും വെള്ളം ചുരുക്കി ചുരുക്കി ഉപയോഗിക്കാൻ അതുപോലെ വേനൽ കാലങ്ങളിൽ പുഴ പുഴ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വെള്ളം അതുകൊണ്ട് അലക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ശ്രമിക്കേണ്ടത്